ഇവിടെ നിന്ന് വടക്കേ സ്റ്റാൻഡ് എത്താൻ എത്ര നേരം എടുക്കും ഓ ബ്ലോക്ക് ആയത് കൊണ്ട് എക്സ്ട്രാ സമയം എടുക്കും അല്ലെ അപ്പോൾ ബ്ലോക്ക് ഇല്ലാത്തപ്പോൾ യൂഷ്യലി എത്ര നേരം എടുക്കാറുണ്ട് അ അ ആ അപ്പോൾ നമ്മൾ ഇപ്പം പെരിങ്ങാവ് വഴി പോവുകയാണെങ്കിൽ പക്ഷെ ഞാൻ പെരിങ്ങാവ് വഴിയിൽ എന്തോ റോഡ് പണി നടക്കുന്നുണ്ടെന്ന് കേട്ടായിരുന്നു അപ്പം നമുക്ക് മറ്റേ ചെമ്പുക്കാവ് വഴി എടുക്കേണ്ടി വരും ആ അപ്പോൾ ആ വഴി എടുത്താൽ നമ്മൾ ഏകദേശം എത്ര നേരം എടുക്കുമായിരിക്കും ഓ ഓക്കേ ഓക്കേ ആ ചെമ്പുക്കാവ് വഴി ആവുമ്പം അവിടെ റോഡ് പണി ഇല്ലാത്തത് കൊണ്ട് വേഗം എത്തുമായിരിക്കും അല്ലെ ആ ഓക്കെ ഓക്കെ ആ ശരി